സാങ്കേതികവിദ്യകളുടെ ഈ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഉപയോഗങ്ങളും ഇന്നത്തെക്കാലത്ത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് എന്നു വെച്ചാൽ പണ്ടത്തെക്കാലത്ത് ഇപ്പം ഫോൺ വിളിക്കാനാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ എല്ലാവരും ഭയങ്കര സംസാര പ്രിയരായിട്ടുള്ള ആൾക്കാരാണ് കുടുംബത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും എല്ലാവരും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഇപ്പം എൻ്റെ അമ്മയോട് സംസാരിക്കണം ഇപ്പം ദൂരെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പണ്ടുതൊട്ടുള്ള കാലങ്ങളിൽ ഈ ലാൻഡ്ലൈനും ടെലഫോൺ അങ്ങനെയൊക്കെയായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്തിലാണെങ്കിൽ ഇപ്പം നമുക്കൊരു മൊബൈൽ അവൈലബിളാണ് സ്മാർട്ട് ഫോൺ അതിൽ തന്നെ പല ആപ്പുകളും മൊബൈൽ ആപ്പുകൾ ട്രൂ കോളർ ഗൂഗിൾ മീറ്റ് സൂം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല പല സോഷ്യൽ മീഡിയയിലും അവൈലബിലാണ് അതുവഴി ഒരുപാട് നമുക്ക് അവരോട് സംസാരിക്കാനും കൂടുതൽ ബന്ധപ്പെടാനുമൊക്കെയായിട്ട് പറ്റും പിന്നെ ഇപ്പോഴത്തെ കാലത്തിലാണെന്നു വെച്ചാൽ ഏറ്റവും ടെക്നോളജിപരമായി വളരെ വളരെ ഡെവലപ്പായിരിക്കുന്നു വെൽ ഡെവലപ്മെൻ്റായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പണ്ടത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല പല മൊബൈലില്ല ലൈറ്റ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല പണ്ടത്തെ കാലങ്ങളിലാണെങ്കിൽ ഈ പലരും മെഴുകുതിരി വെട്ടത്തിലും അങ്ങനെയൊക്കെ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവർ ആ പഴയ കാലഘട്ടം ഡെവലപ്മെൻ്റായി സമ്മാനിച്ച അതാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജൻ ന്യൂ ജൻ കാലഘട്ടം അപ്പം അവർ സമ്മാനിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ടെക്നോളജി അവർ ഓരോ ആശയങ്ങൾ അതിൽ എല്ലാം ഇപ്പം ഇപ്പം ഗൂൾ ഗൂഗിളിപ്പം നമുക്ക് വളരെ ആവശ്യപ്പെട്ട എന്ത് എന്തു സെർച്ച് ചെയ്താലും ഇപ്പം എനിക്ക് പഠനകരമായ പഠന പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ എന്തെങ്കിലും അറിയാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുത്താൽ അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ ഇപ്പം പ്രോജക്റ്റൊക്കെ പലയിടത്തും കോളേജിൽ എനിക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ അതിന് അതിനുവേണ്ടി മാത്രം ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പുകളുണ്ട് ആ ആപ്പിനോട് ചോദിച്ചാൽ ഇപ്പം ആ ആപ്പിനോട് എനിക്ക് ഇതിൻ്റെ എൻ്റെ പ്രസൻ്റേഷൻ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ടുള്ള ഡീറ്റെയിൽസായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവഴി ഈ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പറഞ്ഞുതരും പിന്നെ അതേപോലെതന്നെ ഇപ്പം എനിക്ക് നോട്ട്സ് കമ്പ്ലീറ്റ് ചെയ്യാനുണ്ട് അതിൽ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനനുസരിച്ചുള്ള ആൻസർ തന്നെ പല പലരുടെയും പലരുടെയും ആശയങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കോപ്പിറൈറ്റ് ചെയ്ത് കാണിച്ചുതരും ഇങ്ങനെയൊക്കെ ഇതുവഴി വളരെ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ എൻ്റെ വീട്ടിലെനിക്ക് വളരെ സഹായിച്ചിട്ടുള്ളതെന്നു വെച്ചാൽ ഞാൻ ഒരു ക്യാമ്പിനിങ്ങനെ പുറത്തു പോകുമ്പോൾ എൻ്റെ ആ എൻ്റെ വീട്ടിലെ എൻ്റെ ആ അമ്മയെ ഞാനെൻ്റെ അമ്മയെയൊക്കെ കാണാതിരിക്കുന്ന അങ്ങനെ ആൾക്കാരാണ് അപ്പോൾ അമ്മയോട് സംസാരിക്കാനും കോൾ വഴി സംസാരിക്കാനും കണ്ടു സംസാരിക്കാനുമൊക്കെ പറ്റും അതുവഴി കൂടുതൽ ആശയപ്രദമായിട്ടുള്ള കാര്യമാണ് ഇതുവഴി ഈ ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാകുന്നത്